ഹലോ റിലാക്സ് ഹോട്ടലല്ലേ അ ഞാൻ ഈ ഇടയ്ക്ക് അവിടുന്ന് ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു മാനന്തവാടിയിൽ ചെറ്റപ്പാലത്തേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഓഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ അതെ അതെ അതെ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അവിടേക്ക് അല്ല ഓഡർ ചെയ്യേണ്ടത് അത് പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു എനിക്ക് ഇന്ന് കുറച്ച് സാധനങ്ങൾക്ക് അതായത് കുറച്ച് ഭ ഭക്ഷണ ഐറ്റംസൊക്കെ എനിക്ക് ഓർഡർ ചെയ്യേണ്ടതുണ്ടായിരുന്നു ആ അതെ അതെ അതെ അപ്പോൾ ഞാനിപ്പോൾ അവിടെയല്ല ഉള്ളത് ആ അഡ്രസ്സിലേക്ക് അല്ല കൊണ്ടെരേണ്ടത് അഡ്രസ്സ് ഒന്ന് പറയാനും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എൻ്റെ വീട് അതായത് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കാട്ടിങ്ങൽ റോഡിന് കാട്ടിക്കുളം എത്തേണ്ട കുറച്ച് അതിന് ഇപ്പുറത്തേക്ക് അവിടേക്ക് ഒന്ന് എത്തിക്കാൻ പറ്റൂലെ ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ അവിടേക്ക് ഒന്ന് എത്തിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണെന്താവെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിക്കുളം ആ ഭാഗത്താണ് ആ ഓക്കേ ഓക്കേ ആ അതായത് എനിക്ക് ഒരു രണ്ട് മൂന്ന് ചിക്കൻ ബിരിയാണി വേണം ആ അതെ അതെ പിന്നെ എന്തെങ്കിലും കുടിക്കാനോ അങ്ങനെയെന്തെങ്കിലും ആ ഇപ്പം മായോ ഫ്രൂട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുണ്ടോ ആ ഒരു രണ്ട് ലിറ്ററിൻ്റെ മായും മൂ മൂന്ന് ചിക്കൻ ബിരിയാണിം പിന്നെ പിന്നെ വേറെന്താണ് ഉള്ളത് ഓക്കെ ആ ഒരു അൽ ഒരു രണ്ട് അൽഫാമ് ഇത് വാങ്ങിയേര് അൽഫാമിൻ്റെ മറ്റേ ഇത് മാത്രം ചിക്കൻ മാത്രം മതി റൈസോ അങ്ങനെത്തെയൊന്നും വേണ്ട ആ ഒക്കെ അങ്ങനെയാണെങ്കിൽ അവിടേക്ക് ഒന്ന് പൊതുവേ ഞാനിപ്പോൾ ഞാനെൻ്റെ അഡ്രസ്സ് ഞാൻ പറഞ്ഞു തരാം അതായത് കാട്ടിക്കുളത്തേക്ക് എത്തണ്ട അതിനു കുറച്ച് ഇപ്പുറത്ത് ഞാൻ വാട്സ്ആപ്പ് ചെയ്യാം ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഒന്ന് വേഗം എത്തിക്കുട്ടോ ഓക്കേ എന്നാൽ